ആ ഓക്കെ ഇരിക്കൂ ഏത് അജു അജു കൃഷ്ണ ആണോ ആ ഓക്കെ ഓക്കെ ഇരിക്കൂ ഇരിക്കൂ എന്താണ് മോൻ വീട്ടിൽ ഒക്കെ എങ്ങനെ ഉണ്ട് പഠിക്കുന്നുണ്ടോ മടി ആണ് അല്ലേ പക്ഷേ കുഴപ്പമില്ല ആ ആ അല്ല മാർക്ക് കുഴപ്പമില്ല ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് കുഴപ്പമില്ല പക്ഷേ മാത്സിലും സയൻസിലും കുറച്ച് മാർക്ക് കുറവ് ഉണ്ട് ആ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം കാരണം ബാക്കി ഉള്ള വിഷയങ്ങളിൽ കുഴപ്പമില്ല നല്ല മാർക്ക് ഉണ്ട് ഇതിൽ കുറച്ച് ഉഴപ്പൽ ആണ് ആ മാത്സിനും ഈ സയൻസിനും ട്യൂഷന് വിട്ടാൽ കുറച്ച് കുഴപ്പം ഇല്ല കാരണം മറ്റുള്ള വിഷയങ്ങളിൽ ഒക്കെ നല്ല മാർക്ക് ഉണ്ട് ഇതിൽ മാത്രം കുറച്ച് ഉഴപ്പൽ ഉണ്ട് കളി കുറച്ച് കമ്മി ആക്കാൻ പറയണം

ഇവിടെ ആ പക്ഷേ ക്ലാസ്സിൽ ആൾ നല്ല സ്മാർട്ട് ആണ് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നുണ്ട് അതല്ല ഇതാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത് വീട്ടിൽ ഇപ്പോൾ എങ്ങനെ ആണ് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ കളിക്കാൻ പോയിട്ട് എത്ര മണിക്ക് ആണ് വരുക ആ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലേ

അമ്മ അമ്മ വീട്ടിൽ ഉണ്ടല്ലോ അല്ലേ ആ അല്ല അപ്പോൾ അമ്മയോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം ആ അതെ അതെ ആ ഓക്കെ ഓക്കെ മനസ്സിലായി ആ അപ്പോൾ അമ്മ അമ്മ എന്തായാലും വീട്ടിൽ ഫുൾ ടൈം ഉള്ളതല്ലേ അമ്മ ജോലിക്ക് പോവുന്നൊന്നും ഇല്ലല്ലോ ആ അല്ല അമ്മയോട് അപ്പോൾ ആ ക്ലാസ്സ് ക്ലാസ്സ് വിട്ട് ആ പിള്ളേർ ആയിട്ട് ഒരുപാട് കൂട്ട് കെട്ട് ആയി കഴിഞ്ഞാൽ മാർക്ക് കുറയും ആ അത് ആ അല്ല ഇപ്പം തന്നെ പിള്ളേരിൻ്റെ അടുത്ത് വിടേണ്ട കാരണം ഇപ്പോൾ എട്ടാം ക്ലാസ്സ് അല്ലേ എത്തിയിട്ടുള്ളൂ ഇനിയും സമയം ഉണ്ട് കാരണം അപ്പോൾ ഇപ്പോൾ വന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കളിച്ചോട്ടെ ഒരു സമയം വയ്ക്ക് ഒരു ഏഴ് മണി ഒരു ആറ് മണി വയ്ക്കുക അതിന് ഉള്ളിൽ വരാൻ പറയുക തിരിച്ച് വരാൻ പറയുക ആ അല്ല ഈ ആ അത് ഇത് മറ്റേ സ്കൗട്ടിൻ്റെ ആയിരിക്കും അത് കുഴപ്പമില്ല അത് ആ അത് നമ്മൾക്ക് നോക്കാം അത് സൈഡിൽ അത് നോക്കാം പക്ഷേ നമ്മൾ പഠിത്തം വിട്ടിട്ട് ഉള്ള കളി വേണ്ട എന്തായാലും

ആ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം മാർക്ക് പഠിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ല മിടുക്കൻ ആണ് ശ്രദ്ധിച്ചാൽ മതി ആ അപ്പോൾ പിന്നെ വൈകിട്ട് എവിടെ എങ്കിലും ഒന്ന് ട്യൂഷന് ഒന്ന് ഏർപ്പാട് ആക്കി കഴിഞ്ഞാൽ ഈ കളി കുറച്ചൊന്ന് കുറയുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ആണ് വീട്ടിന് അടുത്ത് തന്നെ ആണോ ആ അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ വേഗം ഒരു ട്യൂഷന് മാത്സിനും സയൻസിനും മതി ബാക്കി ഉള്ള വിഷയങ്ങളിൽ ഒന്നും ആൾ കുഴപ്പമില്ല ക്ലാസ്സിൽ കുഴപ്പമില്ല നല്ല ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് അതെ അതെ മലയാളം ഹിന്ദി സോഷ്യൽ എല്ലാത്തിലും കുഴപ്പമില്ല നല്ല മാർക്ക് ഉണ്ട് ഈ സയൻസ് അതായത് സയൻസിലും മാത്സും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ എന്നാൽ ട്യൂഷന് വിട്ടാൽ മതി ട്യൂഷന് വിടുന്നതാന്ന് നല്ലത് എന്തായാലും എന്താണ് അച്ഛൻ്റെ നമ്പർ ഒന്ന് തന്നിട്ട് പൊക്കോ ഞാൻ അപ്പോൾ വിളിക്കാം ആ അപ്പോൾ ഈ നമ്പർ ഒന്ന് തന്നിട്ട് പോയാൽ ഞാനേ ഏ ആ ഇതിൽ എഴുതിയിട്ട് പോയാൽ മതി പേരും ഒന്ന് എഴുതി വെച്ചാൽ ഞാൻ അപ്പോൾ വിളിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ആ നിങ്ങൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് അമ്മയോടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയുക കാരണം നിങ്ങൾ വീട്ടിൽ ഇല്ല അപ്പോൾ പിന്നെ അമ്മയോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം ഓക്കെ ശരി എന്നാൽ അപ്പോൾ ഞാൻ വിളിക്കാം